ആ ഹലോ മാം ഞാനിത് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയായിരുന്നേ ആ ഞങ്ങൾക്ക് ഒന്ന് ഒരു കണ്ണൂരൊരു ടൂറിനായിട്ട് വരണമെന്ന് ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് കണ്ണൂരിലേക്ക് ഒരു മൂന്ന് ദിവസത്തെ ടൂറിൽ വരണം ഉണ്ടായിരുന്നു എനിക്കും മക്കൾക്കും ഹസ്ബൻഡിനായിട്ട് അപ്പോൾ നിങ്ങൾ കണ്ണൂരുള്ള ആളല്ലേ അപ്പം എനിക്ക് കണ്ണൂരുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് തരാൻ പറ്റുമോ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത് കണ്ണൂരിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണൂരിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഉള്ളത് അത് മൂന്ന് ദിവസത്തിലാണ് വരുന്നത് ആ എന്തായാലും ഞങ്ങൾ വെക്കേഷനേ ഉണ്ടാവുള്ളൂ അതായത് മാർച്ച് ലാസ്റ്റോടുകൂടിയിട്ടേ നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ നാല് പേർ വരുന്നൊരു ടൂർ പാക്കേജ് ആണ് വരുന്നത് നാലാളാണ് ഉള്ളത് പിന്നെ അവിടെ അമ്പലങ്ങളോ അമ്പലങ്ങളും തെയ്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ണൂർ അത് എങ്ങനെയൊക്കെയാണ് ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള ബീച്ച് അല്ലേ അത് അങ്ങനെ ആണെങ്കിൽ ഞാൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേയൊന്ന് നിങ്ങളെ വിളിക്കാം അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയും അതായത് നമുക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും താമസമൊക്കെ നിങ്ങളൊന്ന് ശരിയാക്കി തരണം എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ അതൊന്ന് എനിക്ക് വേണ്ടി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഒരു ഞാനൊരു ഒരു എന്തായാലും ഒരു ഫൈവ് ഡെയ്സിന് മുമ്പേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ എമൗണ്ട് ആയാലും എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞ് തന്നാൽ മതി ഈ നമ്പർ അല്ലേ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഉള്ളത് ഓക്കെ ഞാനീ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ശരി മാം ഓക്കെ ശരി ഓക്കെ മാം താങ്ക് യൂ